ശ്രീമാൻ തകഴി തകഴി ശിവശങ്കരപ്പിള്ള തകഴി ശിവശങ്കരപ്പിള്ള നല്ല രീതിയിൽത്തന്നെ കഥകൾ എഴുതാറുണ്ട് ഒരു പാവപ്പെട്ട വീട്ടിലെ മനുഷ്യൻ ആണ് ആ മനുഷ്യൻ അയാളുടെ ജന്മദേശം തകഴിയിലാണ് പുള്ളിക്കാരൻ എല്ലാ ജനങ്ങളൊടും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവ് ഉണ്ട് പുള്ളിക്കാരൻ ചെമ്മീൻ എന്നു പറയുന്ന ഒരു സിനിമ തന്നെ എടുത്തെഴുതിയിട്ടുണ്ട് പല കാര്യങ്ങളും അങ്ങേര് എഴുതാറുണ്ട് ലേഖനങ്ങളും കവിതകളും കഥകളും എല്ലാം തന്നെ എഴുതാറുണ്ട് എങ്കിലും അയാളെഴുതിയ ഒരു കഥയാണ് ചെമ്മീൻ എന്ന രീതിയിൽ സിനിമാലോകത്തെ അറിയിക്കാൻ പറ്റിയത് ലോക ചെമ്മീൻ എന്നു പറയുന്ന സിനിമ താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എല്ലാ ജനങ്ങളെയും ഒന്നടങ്കം ആശ്വസിപ്പിക്കാൻ ആസ്വദിപ്പിക്കാൻ കഴിയുന്ന അതായത് എല്ലാ ജനങ്ങളെയും സന്തോഷിപ്പിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള കഥകൾ അവർ രചിക്കാറുണ്ട് ചെമ്മീൻ എന്നു പറയുന്ന ഒരു കഥ സിനിമാലോകത്തിന് ഏറ്റവും ബലവത്തായ ഒരു കാര്യമാണ് ചെമ്മീൻ എന്നാൽ ആദ്യമായിത്തന്നെ ചെമ്മീനാണ് മലയാളത്തിൽ നല്ല രീതിയിൽത്തന്നെ പ്രകടമായ ഒരു സിനിമ എന്നു നമ്മൾ മനസ്സിലാക്കാറുണ്ട് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽത്തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ആ കഥയിലൂടെ ആ കഥയിലൂടെ മറ്റുള്ള മനുഷ്യർക്ക് നല്ല രീതിയിൽത്തന്നെ മനസ്സിലാക്കാൻ തക്കവിധം ആ കഥയിൽ ഭാഗത്ത് ആക്കിയിട്ടുണ്ട് എല്ലാ ജനങ്ങളെയും അങ്ങനെ ആ സിനിമാ കണ്ട് എല്ലാ മനുഷ്യരും തകഴി ശിവശങ്കരപ്പിള്ള എന്നു പറയുന്ന മഹത് വ്യക്തിയെ അനുമോദിക്കാറുണ്ട് ആ സിനിമായ്ക്ക് നമുക്ക് പല അവാർഡുകളും അങ്ങേര് വാരിക്കൂട്ടിയിട്ടുണ്ട് എല്ലാ ജനങ്ങൾക്കും ഒരു ഉപകാരിയായ മനുഷ്യൻ കൂടിയാണ് അതുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണതുകൊണ്ട് ആ ആളെ ഞാനും ബഹുമാനിക്കിന്നുണ്ട് എല്ലാ ജനങ്ങളോടും പാവപ്പെട്ടരെന്നോ പണക്കാരെന്നോ ഒരു ഭേതമോ ജാതിയോ മതമോ എന്ന പേരിലോ ഒന്നും തന്നെ അയാൾ മനുഷ്യനോട് ഒരു രീതിയിൽത്തന്നെ അങ്ങനെ പെരുമാറില്ല എല്ലാ മനുഷ്യരെയും ഒന്നായിക്കാണാനും ഒന്നായി കഴിയാനും തക്കരീതിയിൽ അങ്ങേര് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് നല്ല കഥകളും കവിതകളും എല്ലാം അങ്ങേര് എഴുതാറുണ്ട് അങ്ങനെ എഴുതിയിട്ടുള്ള കഥകളിൽ ആദ്യമായാണ് ചെമ്മീനെന്ന കഥ സിനിമയായത് അതിന് രീതിയിൽ വേറെയുള്ള ചെറിയ ചെറിയ കഥകളുമൊക്കെ എഴുതി സിനിമാലോകത്ത് വളരെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് തകഴി ശ്രീ ശങ്കരപ്പിള്ള എന്ന് അറിയപ്പെടുന്നതും ശ്രീ തകഴി ശങ്കരപ്പിള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറു കഥകളും ചെറു ഉപന്യാസങ്ങളും ഒക്കെയെഴുതി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികളെ സന്തോഷിപ്പിക്കാറുണ്ട് തകഴിയെന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് എങ്കിൽപ്പോലും അദ്ദേഹത്തിന് കൈമുതലായിട്ടുള്ള കഴിവുകളിൽ ഒന്നാണ് ഈ കഥയെഴുത്ത് അല്ലെങ്കിൽ കവിതയെഴുതുക എന്നുള്ളത് നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ് തകഴി ശിവശങ്കരപ്പിള്ള എന്നു പറയുന്ന വ്യക്തി ശിവശങ്കരപിള്ളയെ എല്ലാ മനുഷ്യരും ഒന്നടങ്കം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാറുണ്ട് അവാർഡുകൾ വാരിക്കോരിയ അദ്ദേഹം ലോകത്തിന് അതായത് നമ്മുടെ കേരളത്തിന് ഒരു അപമാനം അഭിമാനമായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ്